എൻറ ഫസ്റ്റ് പ്രൊഡക്ട് ഫാനായിരുന്നു പിന്നെ ഹാവൽസിഎൻ്റെ അത് നല്ല ഫാനായിരുന്നു റിമോട്ടൊക്കെയുള്ള ഒരു ഫാനായിരുന്നു അപ്പം തന്നെ റിമോട്ടു കൊണ്ട് നമുക്ക് വളരെയെളുപ്പ എളുപ്പത്തില് എവിടിരുന്നു റൂമില് അപ്പുറത്തെ റൂമിലിരുന്നാണെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഇതൊര് നല്ലൊരു പോസിറ്റീവായിട്ടെനിക്ക് തോന്നി പിന്നെ പങ്ക പങ്കയും ഒരു പ്രത്യേക ഡിസൈനും നല്ല ഡിസൈനാണ് കാറ്റ് കുറച്ച് കൂടുതല് കിട്ടുന്ന ഡിസൈനാണെന്ന് തോന്നുന്നു അതിൻ്റെ ലീഫിന് പിന്നെ റിമോട്ടില് തന്നെ നമുക്ക് എൽ ഇ ഡി ബൾബുണ്ട് ഫാന്ലൊരു എൽ ഇ ഡി ബൾബുണ്ട് അത് നമുക്ക് ഓപ്പറെയ്റ്റ് ചെയ്യാം അത് വേണമെങ്കിൽ ഒണാക്കി വയ്ക്കാം ഇല്ലെങ്കില് ഓഫാക്കി വയ്ക്കാം പിന്നെ മിന്നുന്ന ഒരു ഓപ്ഷനുണ്ടതില് എൽ ഇ ഡി ബാൽബിങ്ങനെ മിന്നി കളിക്കും ഇപ്പ രാത്രി കൊറച്ചും കൂടെ കാണാൻ അടിപൊളിയാണ് പിന്നെ നല്ല സ്പീഡുണ്ട് കെട്ടോ ഫുൾ സ്പീഡൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല സ്പീഡാണ് പിന്നെ റിമോട്ടില് നമുക്ക് പെട്ടന്ന് ഈസിയായിട്ട് കൺട്രോളു ചെയ്യാം അതില് തന്നെ സ്ലീപ്പ് മോഡുണ്ട് വേണമെങ്കില് നമുക്ക് ഒരു മിനുട്ട് നേരത്തേക്ക് ഒണാക്കി വെച്ചിട്ട് നമുക്കെവിടെങ്കിലും പോകണമെങ്കിൽ പോകാം അപ്പം അടിപൊളിയായിരുന്നു മൊത്തത്തില്